ആ എടാ ഞാനേ അടുത്ത ദിവസം വീട്ടിലെ പരിപാടിക്കായിട്ട് വേണ്ടിയിട്ടേ ഹസ്കോട്ടിയ നമ്മുടെ ഇവിടെ ചേർപ്പങ്കൽ ഇരിക്കുന്ന ഹസ്കോട്ടിയ ഇല്ലേ അവിടുന്ന് കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് ചില്ലി ചിക്കൻ ഒക്കെ ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു കുറച്ച് സലാഡ്സും കാര്യങ്ങളൊക്കെയേ അപ്പം ഞാൻ അത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അയച്ച് കഴിഞ്ഞാൽ അത് അവർ കേൾക്കുമോ അതോ നമ്മൾ അവിടെ പോയി ചെന്ന് പറയണോ അത് അവർ ഓർക്കുമോ അതിൻ്റെ സാഹചര്യം എങ്ങനെയാണ് നീ ഒന്ന് അന്വേഷിച്ചിട്ട് അതിനെ പറ്റി ഒന്ന് ഇത് ചെയ്യാമോ ഇല്ലെങ്കിൽ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഓർഡർ എന്തൊക്കെയാണെന്ന് ഹസ്കോട്ടിയയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയയ്ക്കാം